രണ്ട് ലഷത്തി മുപ്പതിനാ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി പത്ത് പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴുവത്തിയെട്ട്